ആ ഞാൻ ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏജൻ്റ് ഏജെൻ്റാണ് ഞാൻ മുൻപേ നിങ്ങളെടുത്തിട്ട് ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് പറയാനായിരുന്നു അതിനെക്കുറിച്ച് പറയാനായിരുന്നു എങ്ങനുണ്ട് അത് ഫലപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ടോ രോഗങ്ങളൊക്കെ ആ ആ പോകുന്നു കുഴപ്പമില്ല ഇപ്പോൾ പുതിയ പുതിയ പിന്നെ ഇൻഷുറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുക ആ നമുക്ക് രോഗങ്ങൾക്കുള്ള ഫാമിലി ഇൻഷുറൻസ്ണ്ട് അതിപ്പോൾ മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഒരു കുടുംബത്തിൽ രണ്ട് മൂന്ന് പേർക്ക് രണ്ട് നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഫാമിലി ഇൻഷുറൻസിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിന് എന്തുവാണ് മറ്റ് സാധനങ്ങൾക്ക് വീടിനുൾപ്പെടെ വാഹനത്തിന് ഉൾപ്പെടെ അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാ ഇൻഷുറൻസ് ഇതിനകത്ത് ഉൾപ്പെടും പുതിതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട് ഒരു വർഷം മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം വരെ ക്ലെയിം കിട്ടുന്ന കാര്യങ്ങളാണ് ആ പിന്നെ ഒരു അംഗത്തിന് കളിപ്പീരൊനിന്നുമല്ല ആ കളിപ്പീരല്ല ആ ഗവൺമെൻ്റിൻ്റെ ആണ് ലൈഫ് ഇൻഷുറൻസാണ് അപ്പം അത് നിങ്ങൾ എടുക്കാൻ ആ ചേരുന്നുണ്ട് ചേരുന്നുണ്ട് ഇപ്പം പുതുതായിട്ട് ഒത്തിരി സ്കീമുകൾ വന്നിട്ടുണ്ട് അസുഖങ്ങൾക്കാണേലും ഒക്കെ ഒത്തിരി സ്കീമുകൾ നമുക്ക് വന്നിട്ടുണ്ട് അ ആ അതെ അതെ പക്ഷേ ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു പറയ് ഇപ്പയീ ഇപ്പൊരു സ്കീമ് ഗവൺമെൻ്റ് പുതുതായിട്ട് വന്നേക്കുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തീട്ടുണ്ട് ഇൻഷുറൻസ് ഏത് ഏയ് ഒരു കുഴപ്പമില്ല അത് ഏറ് ഏത് ഇൻസുറൻസാണേലും കവറ് ചെയ്യുന്ന എന്താണെന്ന് നോക്കിയാൽ മതി എന്തൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടുമോ എല്ലാ എല്ലാ രോഗങ്ങൾക്കും കിട്ടുമോ എന്നുള്ളത് നോക്കിയാൽ മതി അല്ല ഇത് നമക്കു ഒൽ ഹെൽത്ത് ഇൻഷൂറൻസിൻ്റെ ആ ഇത് എനിക്ക് തോന്നുന്നു നമുക്കി സ്റ്റാറിൻ്റെയക്കേ സ്റ്റാറിൻ്റെയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റൽകൾലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാ ഗവൺമെൻ്റിൻ്റെ ആണെങ്കിൽ നമുക്ക് ഗവൺമെൻ്റ് സ്ഥാപനത്തിൽ മെഡിക്ക കോളേജ് ഗവൺമെൻ്റ് സ്ഥാപനങ്ങളിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ അപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒക്കെ ഇൻഷുറൻസ് എടുക്കുന്നോണ്ട് ഇപ്പം വേറെയും ഒത്തിരീ പ്രൈവറ്റ് മേഖലകളിൽ ഒത്തിരി ഇൻഷുറൻസുകൾ കടന്ന് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല ആ എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം ചിലപ്പം നമുക്ക് ദെ ആ അത് വാലിഡ് ആ പോം പോം നമുക്ക് വർഷം തോറും ഇത് പുതുക്കണം നമുക്ക് ഇപ്പം അസുഖങ്ങൾക്ക് കിട്ടിയില്ല ഇപ്പോൾ അസുഖം ഒരു വർഷം നമുക്ക് വന്നില്ല എങ്കിലും അത് അവിടെ തീരുകയാണ് അടുത്തവർഷം അത് വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്ത് പോയെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ആ ആ അങ്ങനെ ആ നമ്മൾ നേരത്തെ ഞാൻ മാഡായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻറ്റൊരു ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടീട്ടുണ്ടെന്ന് തോന്നുന്നു കിട്ടീട്ടുണ്ട് ഞാൻ മുമ്പേ വന്ന് ചെയ്തിട്ടുള്ളതാണ് ഇനിയും പുതിയ പുതിയ പോളിസികൾ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി നിങ്ങളത് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ആ ഇപ്പം ഇപ്പം പുതിയ പുതിയ പോളിസികൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തുവാണ് ജീവൻ മാത്രമല്ല നമ്മുടെ എന്താ വീടുകൾക്കാണേലും സാധനം സാമഗ്രികൾക്കടക്കാണേലും അപകടം എല്ലാത്തിനും നമുക്ക് ഇൻഷുർ ആ അപകടം ആ അപകടങ്ങൾപ്പെട്ട് പിന്നെ അത് ഇൻഷുറൻസ് എടുക്കുന്നത് ഏറ്റോം നല്ലതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു രോഗത്തിനു വേണ്ടി എത്രയോ ലക്ഷ്യങ്ങളാണ് ചിലവാക്കുന്നത് അല്ലേ അപ്പോൾ അത് ആ അത് പൈസ ചിലപ്പോൾ ഇല്ലാത്ത സാഹചര്യമായിരിക്കും ആ ഇല്ലാത്ത സാഹചര്യമായിരിക്കും പക്ഷേ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ലക്ഷം കവറേജ് കിട്ടും അല്ല്യോ അഞ്ച് ലക്ഷം രൂപ കവറേജ് കിട്ടുന്നത് ഉണ്ട് ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ കവറേജ് കിട്ടുന്നത് ഉണ്ട് അപ്പതിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഒരു സമയം ആ വന്ന് ആ വരാം ഓക്കേ ഓക്കേ ഓക്കെ